പലരും വരയ്ക്കുമ്പോൾ പല കല സാമഗ്രികൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എനിക്ക് അതിൽ ഇഷ്ടം ഉപയോഗിക്കാൻ പെൻസിൽ വെച്ചിട്ടാണ് കളർ പെൻസിലും ഷെയിഡിയാനുള്ള പെൻസിലും വെച്ചിട്ട് വരയ്ക്കുന്നതിലാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാനുപയോഗിക്കുന്നത് വന്നിട്ട് ഫേബർ കാസിലിൻ്റെ പെൻസിലുകളാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ലൈറ്റ് ഷെയിഡിനു വേണ്ടി എച്ച് ഗ്രെയിടും ഡാർക്കർ ഷെയിഡിന് വേണ്ടി ബി ഗ്രെയിടുമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് പിന്നെ കളർ പെൻസിലേക്ക് വരുമ്പോൾ ഞാൻ പ്രിസ്മ കളേഴ്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ രണ്ട് ബ്രാൻഡ്സുമാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഞാൻ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുന്നതും ഞാനെന്നും ഉപയോഗിക്കാറുള്ളതും പിന്നെ അവ എവിടുന്നാണ് വാങ്ങാറെന്നു ചോദിച്ചാൽ ഞാൻ മോസ്റ്റ്ലി ഇവരെ വാങ്ങുന്നത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഫ്ലിപ്കാർട്ടും ആമസോണിലൊക്കെ ഇവ ലഭ്യമാണ് അപ്പോൾ അവിടെ നിന്നും വാങ്ങാറുണ്ട് അപ്പോൾ ഓൺലൈനിൽ നിന്നു വാങ്ങുന്നതിലൊരു ഗുണമെന്ന് ഒരു കണ്ടിട്ടുള്ളത് ഞാൻ ചില സമയത്ത് ഇവരുടെ വില നല്ലവണ്ണം ചുരുങ്ങാം അപ്പോൾ ആ സമയത്ത് നമുക്ക് ആവശ്യം ഉള്ള അത്രയും വാങ്ങിവെച്ചാൽ അത്രയും പണം ലാഭിക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇവരുടെ വിലയെ പറ്റി വരികയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന രണ്ടു ബ്രാൻറ്റുകൾക്കും അധികം വിലയില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളെകൊണ്ട് വാങ്ങാൻ പറ്റുന്ന വിലയായിട്ടു തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ കുറച്ചുകൂടി കൂടിയ ബ്രാഡ്ൻസ് നല്ല പ്രീമിയം ബ്രാഡ്ൻസിലേക്ക് പോകുവാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയുണ്ടാകും പക്ഷെ അതിനൊത്ത ക്വാളിറ്റിയും അവർ കൊണ്ട് വരുന്നുണ്ടാകാം ഞാനധികം ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അത് കാരണം പറയാൻ പറ്റില്ല പക്ഷെ അവരുടെ വില ഞാൻ യൂസ് ചെയ്യണ ബ്രാൻറ്റുകളെക്കാട്ടിലും അത്യാവശ്യം നല്ല കൂടുതലുമാണ് അതു കൊണ്ട് ഞാൻ അത്കൾ അവരെ വാങ്ങാറില്ല അപ്പോൾ കൂടുതലാണോ ചോദിച്ചാൽ അത്യാവശ്യം കൂടുതലാണ്